ഞാനെന്റെ പൂന്തോട്ട കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ എന്താ ഞാന് ഓര്ക്കിഡ് വെക്കുവാണ് എങ്കില് ഞാനത് മെയിനായിട്ടും തൊണ്ട് തൊണ്ട് നല്ല രീതിയില് ഉണക്കിയ തൊണ്ട് എടുക്കും അതിനകത്ത് നമ്മുടെ ചിരട്ട കരികള് കട്ട കട്ടകളായിട്ടുള്ള സാധനങ്ങള് അതിനുശേഷം ആയിരിക്കും ഓര്ക്കിഡിനെ നമ്മള് ആ ഒര് തണ്ട് നമ്മള് അതില് വെച്ചിട്ട് നമ്മള് മരത്തിൽ കെട്ടുന്നത് അപ്പം ഞാൻ ഈ തൊണ്ട് ഉപയോഗിക്കുന്നത് ഈ ഓര്ക്കിഡ് ഉള്ള ഓര്ക്കിഡിന് ഏറ്റവും കൂടുതല് അങ്ങനെ നമ്മള് തൊണ്ടിനകത്ത് വളര്ത്തുമ്പഴാണ് കൂടുതലും പൂക്കളൊക്കെ അത് നമുക്ക് തരുന്നത് നല്ല ഭംഗിയുള്ള കളറ് കൂടുതല് കളറൊക്കെ വരും അതുപോലെതന്നെ ഞാന് വേറെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് ഈ പ്രാണികളെയൊക്കെ നശിപ്പിക്കാനൊക്കെയായിട്ട് ഞാന് തന്നെ ഉണ്ടാക്കിയ ഒരു മിശ്രിതമാണ് അതായത് വെളുത്തുള്ളി വെളുത്തുള്ളി വിനാഗിരി അങ്ങനെയുള്ള സാധനങ്ങള് ചേര്ത്തിട്ടൊരു മിശ്രിതം ഉണ്ടാക്കി അതിനു വേണ്ടി സ്പ്രേ കുപ്പിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെതന്നെ ചെറിയ തൂമ്പ ഉണ്ട് വലിയ തൂമ്പ ഉണ്ട് ഇപ്പം ചെറിയ ഇപ്പോൾ ഒരു റോസ അല്ലേ അങ്ങനെയൊക്കെ ഉള്ളതാണ് എങ്കില് ഞാനത് ചെറിയ തൂമ്പ ചെറിയ കൈകോട്ട് യൂസ് ചെയ്യും ഇപ്പം കുറച്ചും കൂടെ ആഴം കൂടിയ കുഴി വേണമെങ്കില് വലിയ തൂമ്പയൊക്കെയാണ് ഞാനുപയോഗിക്കുന്നത് പിന്നെ കത്രിക ഇതിന്റെ സ്റ്റെം കട്ട് ചെയ്യാനെക്കെയായിട്ട് അതിനെ ലെവൽ ചെയ്യാനെക്കെയായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെതന്നെ വാട്ടര് വെള്ളം ഒഴിക്കാനായിട്ടുള്ള വാട്ടര് ക്യാൻ ഉണ്ട് ബോട്ടിലുണ്ട് അത് വലുതും പല സൈസില് ഉള്ളത് ഉണ്ട് ഇപ്പം ചെല ചെടികള് ഹാങ്ങ് ചെയ്ത് ഇട്ടിരിക്കുന്നതായിരിക്കാം അപ്പോൾ അതനുസരിച്ചുള്ളത് കൊണ്ട് പിന്നെ ഒരു പംമ്പിഗ് മെഷീൻ ഉണ്ട് ഇങ്ങനുള്ള സാധനങ്ങളൊക്കെയാണ് ഞാന് യുസ് ചെയ്യുന്നത് പിന്നെ നമ്മള് ഗ്രോ ബാഗ് അതിനകത്ത് ആദ്യം ഞാന് വെച്ച് കഴിഞ്ഞ് അതിനെ ഒന്ന് ചെറിയ രീതിയില് വളര്ത്തിയതിന് ശേഷമാണ് ഞാന് ചെടിച്ചട്ടിയിലോട്ട് മാറ്റുന്നത് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാനെന്റെ പൂന്തോട്ടത്തില് ഉപയോഗിച്ചു വരുന്നത്